ഇപ്പോൾ നമ്മള് രണ്ട് തരം സാ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് രണ്ട്തരം രണ്ട് തരം പറഞ്ഞ് കഴിഞ്ഞാൽ കടൽ മത്സ്യങ്ങളും ഉണ്ട് പുഴ മത്സ്യങ്ങളും ഉണ്ട് ഇപ്പോൾ നമുക്ക് അധികവും കടലിൽ നിന്നാണ് ഇപ്പോൾ ഇപ്പത്തെ സാഹചര്യം പണ്ടൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുഴയിൽ നിന്നൊക്കെ മീൻ പിടിച്ച് എല്ലാവരും പെട്ടന്ന് പെട്ടന്ന് പുഴയിൽ നിന്നുള്ള മീനൊക്കെയായിരുന്നു ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പറഞ്ഞാൽ അങ്ങനെയല്ല കടൽ മത്സ്യങ്ങള് ചാള അയല പിന്നെ സ്രാവ് അതുപോലെ കട്ട്ള ഫിലോപ്പി അങ്ങനെ കുറെ മൽസ്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടില് വളർത്താൻ പറ്റുന്നതിപ്പോൾ പുഴയില് കിട്ടുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചെറിയ ഇതുണ്ട് പരല് അതുപോലെ സെ സിലോപ്പി ബ്രാല് പിന്നെ കരിമീന് പുഴ മീൻ കട്ട്ള അങ്ങനെ കുറെ അധികം മീനുകളുണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മള് സാധാരണക്കാരിങ്ങനെ കരിമീന് അതുപോലെ ഫിലോപ്പി സിലോപ്പി ചെമ്മീന് ചൂര കണവ കൂരി അങ്ങനെ കുറെയധികം മീനുകളാണ് അധികവും നമ്മുടെ ആൾക്കാര് കഴിക്കാൻ ഇഷ്ട്ടപ്പെടുന്നത്